അ ഹലോ സാറെ ഞാന് ചങ്ങനാശേരീന്നാണ് വിളിക്കുന്നെ എന്റെ പ്ലസ് ടു കഴിഞ്ഞു കമ്പ്ലീറ്റഡായി അപ്പോഴെനിക്കൊരു ജോലി ലഭിക്കാന് വേണ്ടിയാരുന്നെ അപ്പോള് പ്ലസ് ടു വെച്ചിട്ട് ഞാന് നോക്കിയപ്പോഴത്തേനെനിക്ക് ഒരുപാട് ജോലിസാധ്യതകള് കാണുന്നുണ്ട് ഉണ്ടപ്പോള് എനിക്ക് യു എ എന്നിന്റെ ഒരു ഐ ഡിയും കൂടെ വേണമായിരുന്നു അതിനു ഞാന് എന്തുവാ ചെയ്യേണ്ടത് ഞാനതിന്റെയീ ഈ ഇ ഇ പി എഫ് ഒ പോര്ട്ടില് സന്ദര്ശിച്ചാരുന്നു അപ്പോള് അതിന് അതിന്റകത്ത് ഓണ്ലൈനില് അപേക്ഷിക്കാനാണ് അവര് പറഞ്ഞത് ഞാനിപ്പോള് അത് ഓണ്ലൈനില് അതിന്റെ ഒരു ഫയല് കണ്ടു

അ അപ്പോള് ഇനിയിപ്പോള് സാറതു അതിന്റെ ഇനിയിപ്പോഴതിന്റെ എനിക്ക് സബ്മിറ്റെട് ആയി കഴിഞ്ഞിട്ട് അതിലിനി ഞാനെന്നാ ചെയ്യേണ്ടത് എനിക്ക് അതിന്റെ ഐ ഡിയെനിക്ക് ഓണ് പാ ഐ ഡി എനിക്കെങ്ങനെ ലഭിക്കും സാറെ പോസ്റ്റലില് വരുവോ ഓക്കെ ഓക്കെ സാറെ ഓക്കെ ഞാനതിന്റെ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്കതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഇപ്പോള് ഒരപേക്ഷ വെക്കണമെങ്കില്ത്തന്നെ ഇതിന്റെയും കൂടെയൊരു കാര്ഡ് ഉണ്ടെങ്കില് അതെനിക്ക് വളരെ ഉപകാരമായിരുന്നു അതുകൊണ്ടാണ് സാറിത് ഞാന് ചോദിച്ചത് ഒത്തിരി താങ്ക് യു എനിക്കിപ്പോള് അതിന്റെ അതിനെ കുറിച്ച് എനിക്കതിനെ വലിയ അറിവില്ലായിരുന്നു എനിക്കിതെല്ലാം പറഞ്ഞുതന്നതിനൊത്തിരി താങ്ക് യു സാര്